എൻ്റെ വീട്ടിലെ റംബൂട്ടാൻ്റെ മരത്തെ ഇതാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് റംബൂട്ടാൻ ഉണ്ടായ സമയത്ത് ആദ്യമായിട്ട് റംബൂട്ടാൻ ഉണ്ടായ സമയത്ത് അത് ഒത്തിരി ഇത് ഇങ്ങോട്ട് അത് കുല കുലയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടന്ന് അതു പഴുത്ത് കിടക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അപ്പം ആ റംബൂട്ടാൻ്റെ അടുത്ത് നിന്നുകൊണ്ടുള്ളൊരു ഫോട്ടോ ഇതിങ്ങനെ ഒത്തിരി പഴുത്ത് നിൽക്കുന്ന കുല കുലയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് വച്ചിട്ടുണ്ട് അതു കാണാൻ ആ അത് നിൽക്കുന്നത് കാണാൻ തന്നെ ആ ഫോട്ടോയും കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇത്രയും അങ്ങനെയുള്ള പിന്നെ അത് കൂടാതെ നമ്മുടെ ഇവിടെ മുരിങ്ങക്കായ ഉണ്ടായിരുന്നു മുരിങ്ങക്കായ ഉണ്ടായപ്പോഴത്തേക്ക് അത് ഇതുപോലെ ഇഷ്ടമ്പടി മുരിങ്ങക്കായ കൊണ്ടുവിൽക്കുക വരെ ചെയ്തിട്ടുണ്ട് അപ്പം ആ മുരിങ്ങക്കായ ഒക്കെ ഉണ്ടാകുന്ന നമ്മുടെ വീടുകളിലുണ്ടാകുന്ന സാനങ്ങൾ അത് ഒത്തിരി ഉണ്ടായിക്കഴിഞ്ഞ് നമ്മൾ വിൽക്കുന്നത് കാണാൻ തന്നെ നമുക്കൊരു ഭംഗിയാണ് പിന്നെയതുപോലെ തന്നെയാണ് മാങ്ങ മാവ് നമ്മുടെ ഇവിടെയുണ്ട് അതിപ്പം പൂത്ത് നിൽക്കുകയാണ് കഴിഞ്ഞ വർഷം മാവ് മാങ്ങ ഉണ്ടായിരുന്നു അതുണ്ടായ സമയത്ത് ഇഷ്ടമ്പടി മാങ്ങ ഉണ്ടായിരുന്നു അതുതന്നെ നല്ല അതിൻ്റെ മാമ്പഴം ഒക്കെയാണെങ്കിൽ തിന്നാൻ തന്നെ ഒരു ഭംഗിയാണ് നല്ല രുചിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം റംബൂട്ടാന്റേയും എല്ലാം ഇതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്ത് വച്ചിട്ടുണ്ട് ആ പഴുത്ത് നിൽക്കുന്ന കുല കുല ആയിട്ടുള്ള ഫോട്ടോ അതിപ്പൊഴും കാണാൻ തന്നെ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്